ഇപ്പോൾ പുഴ സൈഡിലക്കെ ആണെങ്കിൽ നല്ല ആവോലി മറ്റേ എന്താ പറയുക നമ്മുടെ മൂഷി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കിട്ടും അപ്പം അതിനൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ചെളിച്ചെവ ഉണ്ടാകും കാരണം അത് എന്താ പറയുക ഈ പുഴയിലൊക്കെ ഉണ്ടാകുന്നത് ആയതുകൊണ്ട് അപ്പം കായൽ മത്സ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ വലിയ മീനുകളേക്കാളും എനിക്കിഷ്ടം നത്തോലി അതുപോലെ തന്നെ അയല മത്തി കടൽ മത്സ്യങ്ങളാണ് എനിക്കിഷ്ടം അപ്പോൾ പിന്നെ ഇപ്പോൾ സാധാരണ എല്ലാവരും ഞാൻ മാത്രം ഒഴിവാക്കി എല്ലാവരും വലിയ മീനുകളെ കഴിക്കാറുണ്ട് എന്താ പറയുക നെയ്മീൻ അങ്ങനെ തന്നെ എനിക്ക് എന്താ പറയുക കൂന്തൾ അങ്ങനത്തെ മീനുകൾ ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം സീ ഫുഡ് ആണ് ഒരുപാട് ഇഷ്ടം മറ്റേ ക്രാബ് ആയിക്കോട്ടെ അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ കൂന്തൽ ആയിക്കോട്ടെ പിന്നെ നമ്മുടെ ചെമ്മീൻ ആയിക്കോട്ടെ അതൊക്കെ ഒരു ഒരു അടിപൊളി ടേസ്റ്റ് ആണ് കാരണം നമ്മൾ എപ്പോഴും കഴിക്കാറില്ല പക്ഷേ കഴിക്കുന്നത് നല്ലതാണ് ഇപ്പം ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം അതുപോലത്തുള്ള ഫുഡുകൾ ആണെന്ന് തോന്നുന്നു കാരണം ഇപ്പം എല്ലാവരും മാറിയിരിക്കുന്നു ഇപ്പോൾ അയിലയും മീനുകളിലും ഒക്കെ പിന്നെ മീനൊക്കെ വറുത്ത് അയല മീനും മത്തി മീനും ഒക്കെ വറുത്ത് അല്ലെങ്കള്ള് കറി കൂട്ടി കഴിഞ്ഞാൽ പിന്നെ വേറൊന്നും വേണ്ട അതാണ് എന്താ പറയുക സാധാരണ ആളുകൾക്കും ഇപ്പം ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രണ്ടു മൂന്നു മാസം പഴക്കമുള്ളതായിരിക്കും വരിക അപ്പം അതിന് ചില മാറ്റങ്ങളുണ്ട്